ഇപ്പോൾ നമ്മള് നോർമലി ഇപ്പോൾ പാത്രങ്ങളൊക്കെയായിട്ട് ചട്ടി കലം പിന്നെ ചെരുവങ്ങള് അങ്ങനെയുള്ള സാധങ്ങള് പിന്നെ എന്താ പറയുക മൺചട്ടി സ്റ്റീലിൻ്റെ ചെരുവങ്ങള് അലുമിനിയം പാത്രങ്ങള് അങ്ങനെത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മള് കൂടുതലായിട്ടും അടുക്കളേല് കുക്കിങ്ങിനായിട്ട് നമ്മള് യൂസെയ്യുന്നത് പിന്നെ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ കൂടുതലും എന്താ പറയാ ബൗൾസ് പിന്നെ ഗ്ലാസ് ബൗൾസ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെയാണ് നമ്മള് കൂടുതലായിട്ടും യൂസെയ്യുന്നത് പിന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെയാണ് ഇന്ന് ഇപ്പോൾ ഒരിതില് നമ്മള് യൂസെയ്യുന്നത് ഗോൾഡ് നമ്മള് പണ്ടുകാലങ്ങളിലൊക്കെ നമ്മള് യൂസെയ്തോണ്ടിരുന്ന നമ്മുടെ ചെറുപ്പത്തിലൊക്കെന്നു പറയുമ്പോൾ കൂടുതലും മൺചട്ടികള് മൺ പാത്രങ്ങള് കലങ്ങള് എല്ലാം മണ്ണുപയോഗിച്ചിട്ടുള്ള പാത്രങ്ങള് തന്നെയാണ് നമ്മള് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഭാവില് ഇപ്പോഴാണ് നമ്മള് കൂടുതലായിട്ടും അലുമിനിയം പിന്നെ എന്താ പറയുക മറ്റ് ഇതൊക്കെ ഇപ്പ സ്റ്റീല് നോൺ സ്റ്റിക്കിൻ്റെ പ്ലേറ്റുകള് അങ്ങനെത്തെയൊക്കെ യൂസെയ്യാൻ തുടങ്ങിയത്